ആ ഞാൻ രണ്ടു മാസം ആയിട്ട് ഇപ്പോൾ കേരളത്തിലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഇടുക്കിയിലാണ് സ്റ്റേ ചെയ്യുന്നത് ആ നമുക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല ടീ പ്ലാൻ്റേഷൻ നല്ല നമുക്ക് ടീ പൗഡർ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അങ്ങനെയല്ല നല്ല ഗ്രീൻ ടീ പൗഡർ കിട്ടുന്ന സ്ഥലം എവിടെയാണ് നല്ല ചായപ്പൊടി കിട്ടുന്ന സ്ഥലം ഇവിടെ ഇടുക്കിയിൽ എവിടെയാണ് ഉള്ളതെന്ന് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ നമ്മൾ അത് ഇവിടെ നിന്ന് ബൾക്ക് ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ കൊണ്ടുപോവാൻ ആയിട്ട് ഓക്കേ അവർ പ്യുവർലി ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതാണോ അതോ വിഷം വർഷങ്ങളായിട്ട് വിഷം ഒക്കെ യൂസ് ചെയ്യാറുണ്ടാവുമോ അല്ല ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് അവർ യൂസ് ചെയ്യുന്ന പൗഡേഴ്സ് ഓർഗാനിക് കെമിക്കൽസ് ആയിരിക്കുമോ അതോ അണ്ണോർഗാനിക് ആയിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു

ഓക്കേ നമുക്ക് അവിടെ നിന്ന് കാരണം നമുക്ക് ഓർഗാനിക് വേണം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ അല്ല നമുക്ക് ബൾക്ക് ആയിട്ട് അവരുടെ പാക്കിംഗ് കിട്ടിയാലും കുഴപ്പമില്ല നമുക്ക് പേഴ്സണൽ യൂസ് ചെയ്യാൻ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് കുടുംബത്തിലുള്ളവർക്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് രണ്ടുമാസം വന്നിട്ട് ഞാൻ തിരിച്ചു പോവുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല ചായപ്പൊടി കിട്ടും നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അത് മേടിക്കാൻ ആയിട്ടാണ് മെയിന്ലി വന്നത് നോക്കുന്നത് ഇപ്പോൾ ഓക്കേ ഓക്കേ ഓക്കേ നമ്മൾക്ക് അപ്പോൾ അത് അവിടെ ചെല്ലാൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്തിച്ച് തരാൻ എന്തെങ്കിലും വഴി ഉണ്ടാവുമോ അതോ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് അതൊരു ട്രിപ്പ് ആയിട്ട് തന്നെ പോവേണ്ടി വരുമായിരിക്കും അല്ലേ അല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട് നാല് അഞ്ചു പേരുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കയറിപ്പോയി പോകുന്ന വഴിക്ക് തിരിച്ച് ഇറങ്ങി ഞങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം ബുക്ക് ചെയ്തു തരുവാണെ അത് നല്ലതായിരിക്കും ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ താങ്കളുടെ നമ്പർ സേവ് ചെയ്തു വച്ചോളാം എനിക്ക് അപ്പോൾ ഒന്ന് ഞാൻ വന്നു കഴിയുമ്പോ അവിടെ എത്തുമ്പോ ഞാൻ വിളിക്കാം ആ ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ വിളിക്കാം ഞാൻ സൂര്യനിൽ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ സൂര്യനെല്ലി എത്തിക്കഴിയുമ്പോൾ ഞാൻ വിളിക്കാം ആ ഓക്കേ ഓക്കേ താങ്ക് യു ഞാൻ അപ്പം നാളെ എത്തുമ്പോൾ വിളിക്കാം ഓക്കേ താങ്ക് യു